ഒരു മൃഗത്തെ വാങ്ങി അതിന് തീറ്റി കൊടുത്ത് വളർത്തി അതിന് കൃത്യമായ മരുന്നുകൾ മരുന്നുകളൊക്കെ കൊടുത്ത് പരിപാലിപ്പിച്ച് വലുതാക്കി അതിന് കറ കറ കറവയുള്ള കറക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് ദിവസവും കറന്ന് അതിൻ്റെ പാലുകളൊക്കെ വിറ്റ് പിന്നെ അവസാനം നമ്മൾക്ക് ഇപ്പം പശുവുണ്ട് കാളയുണ്ട് കാളേനെയെക്കെയാണെങ്കിൽ നമുക്ക് വലുതാക്കി അത് വില്പനയ്ക്ക് അറക്കാനായിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളു അപ്പം അതിൻ്റെ അറക്കാൻ കൊടുക്കുമ്പോൾ നമ്മളത് അതിൻ്റെ അറക്കുന്ന ആളുകൾ വീട്ടിൽ വന്നത് വിലപറഞ്ഞ് നമ്മൾക്ക് മുതലായ വിലയാണെങ്കിൽ നമ്മളത് കൊടുത്ത് അപ്പം അവരത് കൊണ്ടുപോയി അറുത്ത് അതിൻ്റെ ഇറച്ചീം അതിൻ്റെ എല്ലാ സാധനങ്ങളും ഇപ്പം വിൽക്കാൻ പറ്റുന്നതാണ് അങ്ങനെ പിന്നെ കൊടുത്ത് ഒടുവിൽ പണം സമ്പാദിക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയയും ഇങ്ങനെയാണ് ഒരു മൃഗത്തെ വളർത്തി വലുതാക്കി അതിനെ വിറ്റ് വാങ്ങുന്നവർ അത് കൊണ്ടോയി പിന്നെ കശാപ്പു ചെയ്ത് അവരതിൻ്റെ ഇതൊക്കെ വിറ്റ് അതിനെ അതിൻറ്റേതായ രീതിയിൽ അവരത് കൈകാര്യം ചെയ്യുമ്പം നമുക്ക് തരുന്ന പണം അവർക്കതിൽ കൂടുതലായിട്ട് അവരുടെ കൈകളിൽ വരും അങ്ങനെയാണ്